ആ ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത ഒരു പാസഞ്ചറാണ് ആ ഇന്നു രാവിലെ എനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകേണ്ടത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങളുടെ ഒരു കാർ വിളിച്ച് കാർ വരുമെന്നു പറഞ്ഞതിനേക്കാളും അരമണിക്കൂർ വൈകിയാണ് വന്നത് മാത്രമല്ല യാത്ര വേളയിലാണ് മനസ്സിലായത് ഈ കാർ മഴയത്ത് എവിടെ കിടന്ന് അകം മുഴുവൻ നനഞ്ഞ് സീറ്റ് എല്ലാം നനഞ്ഞിരിക്കുന്നു ഞാൻ കയറിയിരുന്നു കഴിഞ്ഞപ്പം എൻ്റെ പാൻസ് മുഴുവൻ നനഞ്ഞ് അത് മോശമായി ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പം ഈ നനഞ്ഞ ഡ്രസ്സ് ഇട്ടു ഞാൻ എങ്ങനെ പോകും അപ്പം അതുമാത്രമല്ല ഈ ഒരു സുഖ ഇല്ല യാത്രയ്ക്ക് ഒരു സുഖം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഓടിപ്പാണ് ഡ്രൈവർ നടത്തിയത് എന്നിട്ട് എനിക്ക് അരമണിക്കൂറൂടെ ലേറ്റായി വരികയും ചെയ്തു എന്നിട്ട് എനിക്ക് എത്തേണ്ട സ് സ്ഥലത്ത് കൃത്യമായിട്ട് എത്താൻ സാധിച്ചില്ല ഇപ്പം ഈ തരത്തിലാണ് നിങ്ങൾ ആ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വണ്ടി സർവ്വീസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും പൈസ കൃത്യമായിട്ടു വാങ്ങുന്നതാണല്ലോ അപ്പതുകൊണ്ട് ഇത്തരം പരിപാടികൾ ഇനി സ്ഥിരമായിട്ട് നിങ്ങൾ വെച്ചു നടത്തരുത് ഇതു മോശമായിട്ടുള്ളൊരു പ്രവണതയാണ് ഡ്രൈവറിൻ്റെ ഒരു പെരുമാറ്റവും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം ആവശ്യം ഇല്ലാത്തിടത്തെല്ലാം ഹോൺ അടി വേണ്ടാത്തിടത്ത് ബ്രേക്ക് ചവിട്ടി പിടിക്കുക ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു ഡ്രൈവിങ് ആണ് കാണാൻ സാധിച്ചത് അപ്പം അതുകൊണ്ട് ഇന്നെനിക്ക് വളരെ ഒരു നിരാശ നൽകിയ ദിവസമാണ് നിങ്ങളുടെ വണ്ടി ബുക്ക് ചെയ്തതു കൊണ്ടു മാത്രമാണ് ഇതു സംഭവിച്ചത് ഇനി മറ്റാർക്കും ഇതു സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം വിളിച്ചത് ശ്രദ്ധിക്കുക